ഞങ്ങളുടെ ഈ സംസ്ഥാനത്തു പ മതം പലകാര്യങ്ങളും ആഘോഷിക്കാറുണ്ട് പള്ളികൾ അവരുടെ വിശുദ്ധൻ്റെ അല്ലേ പള്ളിയുടെ പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ മാ അമ്പലങ്ങൾ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നുണ്ട് മുസ്ലിം പള്ളികളിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ദീപാവലി ക്രിസ്മസ് ഈദ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ആൾക്കാർ അവരുടെ വിശ്വാസമനുസരിച്ച് ആഘോഷിക്കാറുണ്ട് പിന്നേ മറ്റു ക്രിസ്മസ് ഒക്കെയെന്നു പറയുമ്പോൾ പൊതുവായിട്ടെല്ലാവരും മതം ഒന്നും നോക്കാതെ സ്റ്റാർ തൂക്കുകയും ആഘോഷിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ കുടുംബം കൂടുതലായിട്ട് ആഘോഷിക്കുന്നതെന്നു പറഞ്ഞാൽ ക്രിസ്മസ് ഈസ്റ്റർ പോ പോലെയുള്ള പ്രധാനപ്പെട്ട കടമുള്ള ദിവസങ്ങളുണ്ടല്ലോ അതു പോലെയുള്ള ദിവസങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ടും ആഘോഷിക്കുന്നത്